ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾഎന്നു പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ വാട്ട്സാപ്പ് ഉപയോഗിക്കാറുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ പല പല വാർത്തകളൊക്കെ വായിക്കുന്ന ആപ്പുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് പൊതുവേ ഉപയോഗിക്കാറ് ഇൻസ്റ്റഗ്രാമ് പൊതുവേ ദിവസം കുറേ മണിക്കൂറുകൾ ഉപയോഗിക്കാറുണ്ട്

ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെന്നു പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് അത് കഴിഞ്ഞാണ് വാട്സപ്പും ഫേസ്ബുക്കും പോലുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾ വരുത്തുള്ളൂ ഇൻസ്റ്റഗ്രാം ഒരു ദിവസം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ ഉപയോഗിക്കാറുണ്ട് പൊതുവേ ആളുകൾക്ക് മെസ്സേജുകൾ അയക്കാനും പൊതുവായിട്ടുള്ള വാർത്തകൾ കാണാനും അതുപോലെതന്നെ നമ്മുടെ കൂട്ടുക്കാർ അയയ്ക്കുന്ന റീൽസുകളും പോസ്റ്റുകളുമൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്യുന്നത് അതു മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ആളുകൾക്ക് പണം നൽകുന്നുണ്ട് പോസ്റ്റുകളും റീൽസുകളുമൊക്കെ ഇടുന്നതിന് ആളുകളുടെ വ്യൂസും ലൈക്സൊക്കെ കൂടുന്നതിനനുസരിച്ചാണ് ഇൻസ്റ്റാഗ്രാമ് ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ ആളുകൾ കൂടുതലും അതായത് ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുന്നതും ഇൻസ്റ്റാഗ്രാമാണ് ഇതിലൂടെ വരുമാനം നേടുന്ന പല ആളുകളുമുണ്ട് അതുപോലെതന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കും ആളുകൾക്ക് വരുമാനം നൽകുന്നുണ്ട് പോസ്റ്റുകൾ വീഡിയോസും ഒക്കെ ഇടുന്നതിനാണ് ആളുകൾക്ക് പൈസ നൽകുന്നത് പിന്നെ വാട്സപ്പ് വാട്സപ്പിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് നമുക്ക് പണമൊന്നും കിട്ടില്ല പക്ഷെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സുഹൃത്തുക്കളൊക്കെയായിട്ട് പൊതുവെ സംസാരിക്കുന്നതൊക്കെ വാട്സപ്പിലൂടെയാണ് ഓരോ ഫോട്ടോകളും വീഡിയോകളും മെസ്സേജുകളും ഒക്കെ അയക്കാൻ ഉപയോഗിക്കുന്നത് വാട്സപ്പാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ ഇതിൽ നമുക്ക് മെസ്സേജുകൾ അയക്കാൻ കഴിയുകയുള്ളൂ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം ഇൻ്റർനെറ്റില്ലാതെ ഇതിലൂടെയൊന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല നമ്മളൊരു പരിധിവെച്ചു വേണം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കാരണം ഒരു പരിമിതമായിട്ടുള്ള ഇൻ്റർനെറ്റാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് അതിൽ കവിഞ്ഞാൽ നമ്മൾ അത് റീചാർജ് ചെയ്യണം ആ റീചാർജ്ജ് ചെയ്യുന്നതൊക്കെ ഒരു ഓവറ് ഒരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ചിലവാണ് നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മിതമായിട്ടല്ലെങ്കിൽ അമിതമായി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇൻ്റർനെറ്റ് വാങ്ങാനായി കൊടുക്കേണ്ടതാണ് പിന്നെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെയാണ് പൊതുവേ എന്നും പൊതുവായിട്ടുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് പിന്നെ വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ ഈ പ്ലാറ്റ്ഫോമുകളുടെ ഒരു എന്താ പറയുന്നത് ഒരു ഗുണമാണ് വീട്ടിലിരുന്നു ജോലി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വരുമാനം നേടാം ഇത് നമ്മുടെ കഠിനമായിട്ടുള്ള അദ്ധ്വാനം വീടിനു പുറത്തുപോയുള്ള കഠിനമായിട്ടുള്ള അദ്ധ്വാനം ഇല്ലാതെയാക്കാൻ കഴിയും

നമ്മുടെ ജീവിതം കുറച്ചൂകൂടി മെച്ചപ്പെടുത്താനും എല്ലാം നമുക്ക് സാധിക്കുന്നതായിരിക്കും